ഇപ്പം വിദ്യാഭ്യാസത്തെ കുറിച്ചു പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തെ വിദ്യാഭ്യാസം അല്ല ഇപ്പം ഇപ്പത്തെ കാലത്തെ വിദ്യാഭ്യാസം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല കുട്ടികളുടെ ദേഷ്യം പിടിക്കാൻ പാടില്ല കുട്ടികളെ ഒരുപാട് സമയം പക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളും പേറി ഇപ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാരണം നമ്മൾകൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് അസരിച്ചു പുസ്തകങ്ങളേ ഉള്ളൂ ഇപ്പം കുട്ടികളെ ബേഗ് നിറയേ പുറത്ത് ഒരു ഭാരം വച്ചു കൊണ്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും പിന്നെ കുട്ടികൾ പഠിപ്പിക്കും ടീച്ചർമാർ കുട്ടികളെ അടിക്കാനേ പാടില്ല എന്ന് പറയും കുട്ടികൾക്ക് ഇപ്പം എന്താണ് പഠിക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇലയോ പുഴുവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പണ്ടത്തെ കാലത്തെ വിദ്യാഭ്യാസം പോലെ അല്ല ഇപ്പോഴത്തെ കാലത്തെ വിദ്യാഭ്യാസം പിന്നെ നമ്മൾ കരുതുന്നുണ്ടാവും സമൂഹം പണ്ട് മുതലേ അവഗണിക്കുന്ന ഒരു ഗ്രാമീണ ജനത കാരണം നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ചു പറയുകയാണെങ്കിൽ പണ്ട് മുതലേ നമ്മുടെ വിദ്യാഭ്യാസം കുറേ ആൾക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഉണ്ടാവും ഇപ്പം എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പിള്ളേരാണ് കാരണം ഇപ്പം ആ ഒരു കുട്ടികൾ പോലും പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല പണ്ടത്തെ കാലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ ഒരുപാട് മടിയാണ് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാ എ പ്ലസോടു കൂടി തന്നെ പാസ്സാകുന്ന കുട്ടികളാണ് കാരണം നല്ല വിദ്യാഭ്യാസം എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള കുട്ടികൾ തന്നെയാണ്